നമസ്ക്കാരമിത് പാസ്സ്പോർട്ടോഫീസല്ലേ എനിക്ക് ഒരു പാസ്സ്പോർട്ടിന് വേണ്ടി അപേക്ഷിക്കണമായിരുന്നു ഞാൻ മുന്നേ ചെയ്തിട്ടില്ല അപ്പോഴെനിക്ക് ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ല അപ്പോള് എനിക്കിത് എന്തൊക്കെയാണു വേണ്ടത് എന്നൊന്നും അറിയില്ല എന്തൊക്കെ ആവശ്യമുണ്ട് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്തൊക്കെ പ്രക്രിയകൾ ചെയ്യണം ഞാൻ ഒരു പാസ്സ് പോർട്ടിന് വേണ്ടി അപേക്ഷിക്കാൻ വേണ്ടിയായിട്ട് ഇതിന് പ്രത്യേകിച്ചെന്തെങ്കിലും ഇൻസ്ട്രക്ഷനോ കാര്യങ്ങളെന്തെങ്കിലുമുണ്ടെങ്കിൽ അത് കൂടി ഒന്ന് പറയാമോ കാരണമെനിക്ക് ആറ് മാസത്തിൻറ്റകം എനിക്ക് പുറത്ത് വിദേശത്തിൻറ്റടുത്ത് പഠിക്കാൻ ശരിയായിട്ടുണ്ട് അപ്പോള് അതിന് മുമ്പെനിക്കൊരു പാസ്സ്പോർട്ട് ശരിയാക്കണമായിരുന്നു അപ്പോള് എന്തേലും വഴിയുണ്ടോ എനിക്കിതിനെപ്പറ്റി ഒരു ഒരു ഐഡിയയില്ല ഇതിനെന്തൊക്കെ ഡോക്യൂമെൻറ്റ്സും പത്രങ്ങളും കൊണ്ടുവരണം എന്നൊക്കെ അറിയാമോ എന്തൊക്കെ എലിജിബിലിറ്റി ക്രൈറ്റീരിയോ എന്തെങ്കിലും സെർട്ടിഫിക്കറ്റ്സെന്തങ്കിലൊക്കെ ഞാൻ കൊണ്ടുവരാനുണ്ടങ്കിൽ അത് കൂടി ഒന്ന് പറയാമോ